ആളുകൾ പട്ടണങ്ങളിൽ ജീവിക്കാൻ താൽപര്യപ്പെടുന്നതുകൊണ്ട് യുവതലമുറ അവർക്കനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോന്നു തോന്നുന്നുണ്ടോന്നു ചോദിച്ചാൽ തോന്നുന്നുണ്ട് കാരണം പട്ടണങ്ങളെ വച്ച് നോക്കുമ്പം ഗ്രാമങ്ങളെ വച്ച് നോക്കുമ്പം പട്ടണത്തിലാളുകള് എല്ലാവരും തിരക്കിലേർപ്പെട്ട് അവര് അവരുടേതായ കാര്യം മാത്രം നോക്കി ചുറ്റുപാടും ഉള്ളതൊന്നും അറിയാതെ അവര് ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു പിറ്റേന്ന് വീണ്ടും ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു അങ്ങനെ ഒരിതായിട്ട് നടക്കുന്നവരാണ് അതുകൊണ്ടുതന്നെ അവർക്കിപ്പം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ നോക്കുകയാണെങ്കിൽതന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അവര് സഹിക്കുന്നുണ്ടാവും കാരണം ഒരു എന്താ പറയുക ചുറ്റുപാട് എന്താ നടക്കുന്നതെന്ന് അറിയാത്ത അവര് അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആ സമയം ഗ്രാമപ്രദേശത്ത് വച്ച് നോക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടല്ല കാരണം അവർക്ക് അവരെ ചുറ്റുപാടുള്ളവരേയും തുടങ്ങിയ എല്ലാവരേയും അറിയാം എന്നാൽ പട്ടണങ്ങളിൽ ഉള്ളവർക്ക് അങ്ങനെ അറിയത്തില്ല അതുകൊണ്ടു തന്നെ അവരുടെ സ്വഭാവം മനസിലാക്കല് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്